കർഷകർ വീട്ടുമുറ്റത്തെ കോഴി വളർത്തുന്നവരൊക്കെ അവരുടെ കോഴി വളർത്തൽ പരിപാടികൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ

അപ്പം അതൊന്നും കഴിക്കുന്നതും ശരീരത്തിനും അത്ര നല്ലതല്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കേണ്ട ചില കാര്യങ്ങളെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഈ കളർ കോഴികളുണ്ടാകില്ലേ അങ്ങനത്തെ കോഴികളെയൊന്നും നമ്മൾ മേടിക്കാതിരിക്കുക നമ്മൾ അതായത് വീട്ടിൽ തന്നെ പൊരുത്തിന് വെച്ചിട്ട് അങ്ങനെ ഉള്ള കോഴികളെ മേടിക്കാൻ ശ്രമിക്കുക പിന്നെയെന്ന് വെച്ചാൽ അത് ഇള്ള സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അതിനെ നമ്മൾ അതിന്റെ കൂട് പരിസരങ്ങൾ ഒക്കെ നല്ല വൃത്തിയായിരിക്കണം അതിന്റെ കാഷ്ടമൊക്കെ ദിവസവും അടിച്ചു വാരി കളയണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും